പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും അത് പഴയ രീതിയിലുള്ള ഫോട്ടോ പ്രിൻ്റുകളാണെങ്കിലും നമ്മുടെ പുതിയ ഡിജിറ്റൽ ഫോട്ടോസാണെങ്കിലും രണ്ടിനും ഒരു വൈകാരികമായ മൂല്യമുണ്ടെന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം പഴയ രീതിയിലുള്ള ഫോട്ടോകൾ അത് അത് നമുക്ക് നമ്മുടെ ഇപ്പോൾ എൻ്റെ നോക്കുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്തിലുള്ള ലൈക് ഞാൻ ജനിച്ച മുതലുള്ള ഒരു പത്ത് വയസ്സു വരെയുള്ള ഫോട്ടോകളാണ് പഴയ പ്രിൻ്റ് ഫോട്ടോസായിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് അപ്പം ആ ഒരു ഫോട്ടോ എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ് ഞാനെപ്പോഴും പോയി എപ്പോൾ വേണമെങ്കിലും എടുത്തു നോക്കാൻ പറ്റുന്നതും നമുക്കാ ഒരു ഓർമ്മകളെല്ലാം പോ ഇപ്പം ഈ വീണ്ടും നമുക്ക് അയവിറക്കാൻ അറക്കാൻ പറ്റുന്ന ഒരു കുറേ ഓർമ്മകളാണ് ആ പഴയ ഫോട്ടോകളിൽ നിന്നും കിട്ടുന്നത് ഇപ്പോൾ പുതിയ ഡിജിറ്റൽ പക്ഷേ അതിനു ദോഷങ്ങളുണ്ട് പഴയ ഫോട്ടോകൾ നമ്മൾ നോക്കുമ്പോൾ അതിനും കുറെ ദോഷങ്ങളുണ്ട് കാരണം എൻ്റെ കുറേ ഫോട്ടോകൾ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ലൈക് അത് അതിൽ പൂപ്പൽ പിടിക്കുകയും അങ്ങനെയൊക്കെ ഫംഗസ് പൂപ്പലും അതു പോലത്തെ കാര്യങ്ങൾ പിടിക്കുകയും അതു ചീത്തയായി പോകുകയും ചെയ്തിട്ടുണ്ട് അതിനെയൊന്ന് സംരക്ഷിക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ നമുക്ക് തോന്നും ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയാണ് നല്ലതെന്നു തോന്നും കാരണം ഈ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പം ഗൂഗിൾ ഡ്രൈവ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതിലോട്ട് സ്റ്റോർ ചെയ്ത് ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് എവിടെ ലോകത്തെവിടെയാണെങ്കിലും നമുക്ക് ആ ഫോട്ടോസ് വീണ്ടും വീണ്ടും കാണാൻ പറ്റും അതു വെച്ചു നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയാണ് നല്ലത് അപ്പോൾ രണ്ടിനും രണ്ട് രണ്ട് രീതിയിലുള്ള വൈകാരികമായ ഒരു മൂല്യമുണ്ട് എന്നാലും ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മൾ ആ അത് എന്നും നമ്മുടെ കയ്യിൽ കാണും എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ട് ലൈക്ക് നമ്മൾ ഗൂഗിൾ ഡ്രൈവിലോ ഒക്കെ ആക്കി ഇടുകയാണെങ്കിൽ അതെന്നും നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചു വേണമെങ്കിലും യൂസ് ചെയ്തു തുറന്നു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ ഫോട്ടോസ് പിന്നെ ഇപ്പൊ പലരും പണ്ടുള്ള കുട്ടിക്കാലത്തെയും പഴയ പ്രിൻറ്റ് ഫോട്ടോസിനെ ഡിജിറ്റലൈസ് ചെയ്ത് അത് ചീത്തയായി പോയ ഫോട്ടോസ് നമ്മുടെ എന്താണ് എ ഐ ഉപയോഗിച്ചായാലും അതുപോലെതന്നെ പുതിയ ഡിജിറ്റൽ ടെക്നോളജികൾ ഉപയോഗിച്ച് അതിനെ വീണ്ടും റിക്രിയേറ്റ് ചെയ്ത് പുതിയ രീതിയിൽ പുനർജീവിപ്പിച്ചെടുക്കുന്ന പല കാര്യങ്ങളും നമ്മടെ ഇപ്പം അവൈലബിളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് അതുകൊണ്ടു തന്നെ നോക്കുകയാണെങ്കിൽ ആൾക്കാർ കുറച്ചു കൂടി ഡിജിറ്റൽ ഡിജിറ്റലൈസ് ചെയ്ത് എല്ലാ ഡിജിറ്റൽ ഡിജിറ്റലിലോട്ട് ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ഫോട്ടോഗ്രാഫ്സ് ആയാലും എല്ലാവരുടെ ഓർമ്മകൾ ഡിജിറ്റലൈസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അത് കുറച്ചും കൂടി സ്റ്റോർ ചെയ്യാനും എളുപ്പം എല്ലാം കാര്യങ്ങൾക്കും എളുപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്